സാങ്കേതിക വിദ്യ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് എമ്പത് ശതമാനത്തോളും നല്ല രീതിയിൽ തന്നെ സാങ്കേതിക വിദ്യ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പണ്ട് നമ്മൾക്ക് കൂടുതലും നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതലും ലഭിക്കുന്നത് നമ്മളെ നമ്മൾക്കെപ്പോഴും നമ്മുടെ ബുക്കുകൾ പുസ്തകങ്ങളെയും അതുപോലെയുള്ള പഴയകാല എഴുത്തുകളെയും അങ്ങനെയുള്ള രീതികളിൽ മാത്രമേ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടത്താനായിട്ട് നമ്മൾക്ക് സാധിച്ചിരുന്നുള്ളെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം നമ്മളെ പലതരത്തിലുള്ള അറിവുകളിലേക്കും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ ലഭിക്കുന്ന പലതരത്തിലുള്ള രേഖകൾ നമ്മൾക്ക് ലഭിക്കുകയും നമ്മളെ പഠനത്തിൽ വളരെയേറേ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് സാങ്കേതികവിദ്യ കടന്നു വന്നതുകൊണ്ട് കടന്ന് വന്നതിൽ കൂടെ എനിക്ക് തോന്നിയിരിക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ കൂടുതലും പണ്ടുള്ളതിൽ പണ്ടുള്ള കുട്ടികളിൽ നിന്നും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ ഒഴിച്ചുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അറിവുകൾ അവരെ കാത്തിരിക്കുന്നു എന്നും വളരെ ഉപയോഗപ്രദമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു നാണയത്തിന് ഇരു വശങ്ങളുണ്ടെന്ന് പറയുന്ന കൂട്ട് എല്ലാ കാര്യത്തിനും നന്മയും തിന്മയും ഉള്ളതുപോല തന്നെ സാങ്കേതികവിദ്യകൾ കടന്ന് വന്നതിൽ എൺപത് ശതമാനത്തോളം നല്ലത് നല്ലതാണെങ്കിൽ ഇരുപത് ശതമാനം അത് കുറച്ച് ദൂഷ ഫലങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടികളിലുള്ള വായന അതായത് വായനാശീലം നഷ്ടപ്പെട്ടു കാരണം കൂടുതലും ഇപ്പം നമുക്കറിയാം ചാറ്റ്ജിപിട്ടി യിലേക്ക് നമ്മളന്തെങ്കിലും നമുക്ക് വേണ്ട ഒരു രേഖ തൊടുത്ത് വിട്ടാലും നമ്മൾക്ക് തീർച്ചയായിട്ടും എവിടെ നിന്ന് എന്തൊക്കെയുണ്ടോ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഒരൊറ്റ സെക്കൻലൂടെ നമ്മുടെ മുന്നിലെത്തും അപ്പം നമ്മൾക്ക് അന്വേഷിച്ചറിയാനുള്ള അല്ലെങ്കിൽ തപ്പി കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിപ്പോയി തപ്പി പിടിക്കാനായിട്ട് നമുക്ക് അധിക സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല അപ്പം സമയം എന്നുള്ളതിന് നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് നമ്മുടെ സമയത്തെ നമുക്ക് കൂടുതൽ വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെത്തന്നെ സാങ്കേതികവിദ്യയിലൂടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇത് അതുപോലെത്തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികവിദ്യ കടന്ന് വന്ന വഴി പലതരത്തിലുള്ള നേട്ടങ്ങൾ അതേപോലെത്തന്നെ സ്മാർട്ട് ക്ലാസുകൾ പ്രായോഗിക പഠനങ്ങൾ എന്ത് കാര്യത്തെയും കുറച്ചും പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പം ഒരു ശാസ്ത്രവിഷയത്തെപ്പറ്റി നമ്മളൊരു കാര്യം നമുക്കറിയണമെങ്കിൽ നമ്മുടെ അധ്യാപകരെ നമ്മളെ ഒരു ഇപ്പം ഒരു ഒരു ശരീരഭാഗത്തെെ പറ്റി ഒരു സ്കെലിറ്റനെപ്പറ്റി പറയണമെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഒരു സ്കെലിറ്റൻ വെച്ച് അതിൻ്റെ ഓരോന്നും പെറുക്കി നമ്മൾ മനസ്സിലാക്കി തരണം ആ ക്ലാസുകളിൽ കൂടെ നമ്മൾ മാത്രമേ നമ്മൾക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല കുട്ടികൾക്ക് ഇന്ന ഒരു വിഷയത്തെ പറ്റിയാണെങ്കിൽ അവർക്കത് വീട്ടിൽ പോയി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാനും അതിൻ്റെ സാധ്യതകളെ പറ്റി അതിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് വളരെ കാര്യഗ്രഹണമായിട്ട് പഠിക്കാനായിട്ട് നമ്മളെ സാങ്കേതികവിദ്യ സഹായിക്കാറുണ്ട് ഇപ്പം പഴയ കാലഘട്ടത്തിൽ ജീവിച്ച തൊണ്ണൂറുകളിലും തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ പ്രകടമായ മാറ്റങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പഠിച്ച സമയങ്ങളിൽ എനിക്കൊരു ഒരു വിഷയത്തിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാൻ പലതരത്തിൽ പല ലൈബ്രറികൾ കയറിയിറങ്ങി പല ബുക്കുകൾ റഫറ് ചെയ്ത് മാത്രമായിരുന്നു എനിക്കതിനെപ്പറ്റി അറിവ് കിട്ടിയെങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടിയോ മൊബൈലിൽ കൂടിയോ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ വളരെ വളരെ വിശാലമായിട്ട് ലഭിക്കുകയും നമുക്ക് അത് നമ്മുടെ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൻ അതിൻ്റെ രൂപവും ഭാവവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്കറിയണമെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് വിശദമായിട്ട് നമുക്ക് സാങ്കേതികവിദ്യ വന്നതു വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സമ്മയ്ക്കും എങ്കിൽ തന്നെയാണെങ്കിലും ഇതിൻ്റെ മറ്റൊരു വിഷയത്തിൽ നമ്മുടെ കുട്ടികളുടെ വായനാശീലം കുറഞ്ഞു നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള പരസ്പരം അവർ പരസ്പരം ഇടപഴകിയുള്ള പഠനങ്ങൾ ഇല്ലാതായി അവരുടെ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുന്നതിൽ വളരെ കുറവുകളുണ്ടായി എന്തിനും അവരുടെ അന്വേഷണാത്മക ബുദ്ധി അല്ലെങ്കിൽ അവരുടെ അതല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ബുദ്ധി അവർ ഉപയോഗിക്കാതായി കാരണം അവർക്ക് എന്തും എവിടെയും നോക്കിയാൽ ഇവിടെ എന്തിനെപ്പറ്റി ഉത്തരങ്ങൾ കിട്ടുന്നതു കൊണ്ട് അവരുടെ അന്വേഷണം അവര അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ അവർ തയാറല്ല എല്ലാം എളുപ്പവഴിയിൽ കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം ചുരുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എല്ലാം പെട്ടെന്ന് കിട്ടും എന്തിനെക്കുറിച്ചും കൂടുതൽ കിട്ടുന്നത് വളരെ നല്ലതാണ് സമയം അധികം പാഴായി പോകില്ലെങ്കിൽ കൂടി കുഞ്ഞുങ്ങളിൽ കൂടുതൽ അന്വേഷിക്കാനുള്ളഅവരെ ഒരു ഉത്സുകപഠനത്തിന് അല്ലെങ്കിൽ കൂടുതൽ ഊജമായിട്ട് അവർ അന്വേഷിക്കാനുള്ള അവരെ കഴിവിനെ നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്തു സാങ്കേതികവിദ്യ